വയനാട്ടിൽ ഒത്തിരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ സഞ്ചാരികൾക്കാകർഷിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമ്മള് ആ ഇപ്പം നമ്മുടെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം എന്ന് പറയുന്നത് പോലെ തന്നെ തിരുനെല്ലി അമ്പലം വയനാട്ടിൻ്റെ ഭാഗായിട്ടു വരുന്നതാണ് അതേപോലെതന്നെ ടിപ്പുസുൽത്താൻ്റെ നമ്മുടെ സുൽ ടിപ്പുസുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് ആ അദ്ദേഹം നമ്മുടെ അതായത് ബ്രിട്ടീഷ്ഭരണകാലത്ത് ഇന്ത്യ അതായത് നമ്മുടെ ബ്രിട്ടീഷ് കാല ഭരണകാലത്ത് നമുക്ക് വേണ്ടി ഇന്ത്യയിൽനിന്ന് കുറച്ചുപേരാണ് ആ പിന്നെ പോരാടിയിട്ടുള്ളത് അതിലൊരു മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാജാവാണ് ടിപ്പുസുൽത്താൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പിന്നെ മാനന്തവാടി ആണ് അവിടെ നമുക്ക് കാണാനുണ്ട് അപ്പം നമുക്ക് അവിടത്തെ ചരിത്രം ഓരോ സാധനങ്ങള് പഴയകാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെതന്നെ ഒന്ന് കാണാനുള്ളതാണ് ജൈന ടെമ്പിൾ ജൈൻ ടെമ്പിൾ അത് ടിപ്പുസുൽത്താൻ്റെ കാലത്തുള്ള ഒരു പിന്നെ ടെമ്പിൾ ആണ് ആരാധനയൊന്നുമില്ല വെച്ചുപൂജ അങ്ങനയൊന്നുമില്ല പക്ഷെ ആ ടെംപിളിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മുഴുവൻ കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് സിമന്റോ കട്ടയോ ഒന്നും അതിലില്ല കല്ലിൽ കൊത്തുപണി ചേർത്ത് കല്ലിൽ നിർമിതമായ ഒരു ഇതാണ് അതിൻ്റെ ഉള്ളിലൊരു പിന്നെ തുരങ്കമുണ്ട് അതു നമുക്ക് പിന്നെ മൈസൂര് കോട്ടയിലേക്കാണ് അങ്ങനെയൊക്കെ പറയുന്നതുണ്ട് പോയിട്ടില്ല ഐതീഹങ്ങളാണ് അതൊക്കെ കാണാന് ഉള്ളതാണ് കാരണം കാലാകാലമായിട്ട് പൈതൃകായിട്ട് നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്തുപറയപ്പെട്ട ഒന്നാണത് സുൽത്താൻബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെതന്നെ എടയ്ക്കൽഗുഹ അഞ്ഞൂറടിയോളം മുകളിലാണ് എടയ്ക്കൽഗുഹയുടെ ഹൈറ്റ് ആദിമകാലഘട്ടത്തില് മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലം എന്നാണ് അവരുടെ ഭാഷകളും ലിഖിതം പോലെ അവരെന്തൊക്കെയോ കുത്തിക്കുറിച്ചുവെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പഴും സൂക്ഷിക്കപ്പെടുന്നു അതൊക്കെ സംരക്ഷിച്ചുപോകുന്നു ആ അതും വലിയൊരു കല്ലാണ് നമുക്ക് ആദ്യകാലഘട്ടത്തിലൊക്കെ ഒരു നാന്നൂറടി നാലായിരം അടിയൊക്കെയെ കയറാൻ പറ്റുകയുള്ളു അതുകഴിഞ്ഞാൽ പിന്നെ വല്ല റൂപ്പോ അല്ലെങ്കില് പിന്നെ കയറൊക്കെ വലിച്ച് കയറണമായിരുന്നു ഇപ്പം മുഴുവൻ സ്റ്റെയർ ഒക്കെ വച്ചുകെട്ടിയിട്ടുണ്ടെങ്കിലും പണ്ടുകാലത്ത് ഭയങ്കര റിസ്ക് ആയിരുന്നു അവിടെ കയറാൻ പിന്നെ എന്നൂര് നമ്മുടെ വയനാട് എന്ന് എടുത്തു പറയുപ്പോൾ ആദിവാസിസമൂഹത്തിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ആദിവാസിസമൂഹം താമസിക്കുന്നത് വയനാട്ടിലാണ് ഏ അപ്പം അവരുടെയൊരു പൈതൃകം അവരുടെയൊരു സംസ്കാരികരീതി അതൊക്കെ വിളിച്ചോതുന്നൊരു സ്ഥലമാണ് എന്നൂര് പൂക്കോട് പിന്നെ രണ്ട് ഡാമുകളുണ്ട് വായനാടിനു സ്വന്തായിട്ട് പടിഞ്ഞാറത്തറ കാരാപ്പുഴ ഡാം രണ്ടും വയനാടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഇതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മണ്ണ് ഉണ്ടാക്കിയതാണ് പുഴയൊക്കെ നികത്തി ഉണ്ടാക്കിയതാണ് കാരാപ്പുഴ ഡാമ് അപ്പം അതൊക്കെ എടുത്തുപറയപ്പെടണ്ട ഒന്നാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പറയാനുള്ളത് പിന്നെ തൊള്ളായിരം കണ്ടിയുണ്ട് മീൻമുട്ടിയുണ്ട് ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല സ്ഥാനങ്ങള് നമുക്ക് കാണാനാകും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നല്ല നല്ല സ്ഥലങ്ങള് നമുക്കത് രസകരമാണ് നമുക്ക് കണ്ണിന് കുളിർ ഒരു സുഖമുള്ള കാഴ്ച്ചയാണതൊക്കെ